ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലങ്ങളില് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പിന്നോക്കമായിരുന്നു ആ ഒരു പിന്നോക്കാവസ്ഥ മാറ്റുവാനായിട്ട് പല സംസ്ഥാനങ്ങളും പെൺകുട്ടികളെ മുന്നോട്ടു കൊണ്ടുവരികയും അവർക്കു പഠിക്കാനുള്ള എല്ലാ പാഠ പദ്ധതികൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൈക്കിള് ലാപ്പ്ടോപ്പ് അങ്ങനെ സ്കൂട്ടി പല ഫലപ്രദമായ കൊടുക്കുന്നതുകൊണ്ട് പെൺകുട്ടികൾ മുന്നോട്ടുവരികയും പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം വളരെയധികം മുന്നോട്ടുപോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒത്തിരി ഊന്നൽ നൽകിവരുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തിൽ തന്നെയാണേലും ഇന്ന് പെൺകുട്ടികൾ മറ്റു സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയായിത്തീർന്നിരിക്കുന്നു പെൺകുട്ടികൾ മുന്നോട്ടുവരികയും എല്ലാ തരത്തിലും പെൺകുട്ടികൾ നന്നായിട്ടു പഠിക്കുകയും അതിനുവേണ്ടിയിട്ട് പല പദ്ധതികൾ നൽകയും ചെയ്തുവരുന്നുണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ സൈക്കിൾ കൊടുക്കുന്നതു മുഖേന പെൺകുട്ടികൾക്കു നന്നായിട്ട് വീടുകളിൽ നിന്നെത്തുവാനും പിന്നെ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് അതുപയോഗിച്ചു നന്നായിട്ടു പഠിക്കുവാനായിട്ടും സാധിക്കുകയും ചെയ്യുന്നുണ്ട്

പക്ഷെ ഇന്ന് അതിനെല്ലാം ഒത്തിരി മാറ്റം വന്നു പെൺകുട്ടികൾ പൊന്നാണെന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ലഭിക്കുകയും അങ്ങനെ പെൺകുട്ടികൾക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും സമൂഹവും കുടുംബവും സ്കൂളും ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് ആ അത് കുട്ടികൾ നന്നായിട്ടു പഠിക്കുവാനും വിദ്യാഭ്യാസം യാത്രാസൗകര്യങ്ങൾ കുറവായിരുന്നാൽ പെൺകുട്ടികൾ വരത്തില്ല സ്കൂളിലേക്കു വരുമോ എന്നുള്ളൊരു വരുമോ എന്നുള്ളൊരു ആശങ്കയുള്ളതുകൊണ്ട് കുട്ടികൾക്കെല്ലാം സൈക്കിൾ നൽകുകയും ആ സൈക്കിൾ ഉപയോഗിച്ച് അവർ സ്കൂളിലെത്തുകയും ചെയ്യുന്നു

ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അവർക്ക് ഇന്നിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതു നന്നായിട്ട് ഉപയോഗിച്ച് പഠനമേഖലകളില് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടു സാധിക്കുന്നു

സംശയങ്ങൾ ദുരീകരിക്കുവാനായിട്ടും സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പദ്ധതി ഒരു നല്ല പദ്ധതിയായി കാണുകയും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും അത് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ഒരു സംസ്ഥാനം തുടങ്ങിയത് മറ്റു സംസ്ഥാനങ്ങൾക്കു മാതൃകയായിത്തീരുകയും ആ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ഉപയോഗപ്പെടുത്തുകയും അത് ഇന്ന് പെൺകുട്ടികള് മറ്റുള്ളവർക്കു മാതൃകയായിത്തീരുകയും നന്നായിട്ടു പഠിക്കുകയും അവരുടെ ഓരോ പദ്ധതികളനുസരിച്ച് അവർക്കു മുന്നോട്ടു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെൺകുഞ്ഞുങ്ങൾ നല്ല രീതിയില് വളർന്നുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്